ഹലോ ആ ഹാ ഹാ ആ പറഞ്ഞോ എന്താണ് വേണ്ടത് മാം വെജ് ആണോ പ്രിഫർ ചെയ്യുന്നത് മാം ആ ആ ഹാ ഹാ ഓക്കെ ഓക്കെ ബ്രേക്ഫാസ്റ്റ് അല്ലേ ആ ആ എന്തായിരുന്നു വേണ്ടത് പാഴ്സൽ ചെയ്ത് വേണോ അതോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുവാണോ എടുത്തുവെച്ചാൽ മതിയോ

ഇല്ല ഇല്ല നിങ്ങൾക്ക് അക്കൊമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ധൈര്യമായിട്ട് പൊന്നോ ആ മ് മെനു എന്ത് ആ നമുക്ക് ഇവിടെ ആ നമുക്ക് ഇവിടെ മസ മസാലദോശ ഉണ്ട് ദോശ ഉണ്ട് ദോശ വെറൈറ്റീസ് ഉണ്ട് ഇഡലി ഉണ്ട് രാമശ്ശേരി ഇഡലി ഉണ്ട് മിനി ഇഡലീസ് ഉണ്ട് പിന്നെ പൂരി ഉണ്ട് ചോള ബട്ടൂര ഉണ്ട് പിന്നെ നമുക്ക് ചപ്പാത്തി പൊറോട്ട അപ്പം അങ്ങനത്തെ എല്ലാം ഉണ്ട് വെജ് ആയിരിക്കും കറി വരുന്നത് സാമ്പാറിന്റെ കൂടെ നമുക്കൊരു പ്ലാറ്റർ ആയിട്ടായിരിക്കും സാമ്പാർ ദോശയുടെ കൂടെ നമുക്കൊരു പ്ലാറ്റർ ആയിട്ടായിരിക്കും സാമ്പാർ വട ചട്ട്ണി അങ്ങനെ പിന്നെ പൊറോട്ട എന്ന് നിങ്ങൾ ഇപ്പം പത്ത് പേർ ആയതുകൊണ്ട് പത്ത് പേർക്കുള്ള പ്ലാറ്റർസ് അവൈലബിൾ ആണ് ഡിഫറെൻറ് ആയിരിക്കും എല്ലാ ബ്രെഡുകളും ഉണ്ടാവും പിന്നെ മിക്സ് ചെയ്യാം മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കറികളും ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും മതിയോ അതൊ എല്ലാവരും സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുവാണോ ഉം ആ അപ്പം ബെറ്റർ മാം നിങ്ങൾ ഇവിടെ വന്നിര് ഇരുന്നിട്ട് കറക്റ്റ് ഓർഡർ തരുന്നതായിരിക്കും നല്ലത് നമ്മൾ

ആ നമ്മൾ ഫ്രഷ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് ദോശയൊക്കെ നമ്മൾ പറയുന്ന ഓർഡറിനനുസരിച്ചേ നമ്മൾ ചെയ്യുള്ളൂ നേരത്തെ ഒന്നും ചെയ്തുവയ്ക്കില്ല സോ മാം മാം ഇവിടെ നിയർബൈ ആണ് ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ആ ആ ആ ഓക്കെ മാം ആ ഓക്കെ മാം പോര് ആ ശരി